ഹലോ വാലേക്കും അസ്ലാം എന്തൊക്കെ ചായ ഉള്ളത്

ആ ചായ ഉണ്ടോ എത്രയാണ് രൂപ

കടി എന്താ സമൂസ ഉണ്ടോ അതിനെന്താണ് വില ഇരുപത്തഞ്ച് റുപ്പിക കടലെറ്റ് ഉണ്ടോ ക ക് കടലെറ്റ് ഉണ്ടോ അതിനെന്താണ് വില ഇരുപത് പറാട്ട ഉണ്ടോ പൊറാട്ട പൊറാട്ടക്ക് എങ്ങനെ പതിനഞ്ചോ എന്തൊക്കെയാണ് കറി ഉള്ളത്

ആട് കുറുമയ്ക്ക് എത്രയാണ് എൺപത് രൂപ എനിക്ക് രണ്ട് ചായ രണ്ട് ആ രണ്ട് പൊറാട്ട ചിക്കൻ കറി ഉണ്ടോ